പതിനേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പതിനേഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇരുപത്തിയാറ് ഒന്നെ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി ഒൻപത് ഒന്നെ രണ്ടായിരത്തി പതിനാറ്